ഹലോ അതെയല്ലോ ആ ചോദിക്ക് ഓ ഉണ്ടല്ലോ ഉണ്ടല്ലോ നാടൻ തന്നെയാണ് അല്ല അല്ലല്ല ഇത് വീടുകളീന്ന് കൊണ്ട് വരുന്നതാണ് ഇല്ല ഒത്തിരി ഒത്തിരി ഒത്തിരി പഴുത്തില്ല കറക്റ്റാ ആ അതെ അതെ കിലോയ്ക്ക് അൻപത്തഞ്ച് അൻപത്തഞ്ച് രൂപ

എത്ര കിലോ വേണം എത്ര കിലോ വേണം

ചക്ക ചക്ക ആ ച ആ ചക്ക വറുത്തതുണ്ട് അത് ചെറിയ ചെറിയ പായ്ക്കറ്റിലൊക്കെയാണേൽ കുഴപ്പം ഇല്ലല്ലോ അല്ല ആ അതെ അതെ അത് ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ പായ്ക്കറ്റുകളാണ്

ആ നാടൻ വെളിച്ചെണ്ണയിലാ അല്ലല്ലല്ല ആ അത് അതിന് വില ആ അതിന് വില കൂടുതലാണ് ചക്കേലത് സീസണാണേലും ചക്ക വറുത്തതിനും പൊതുവേ വില കൂടുതലാണ് ഓക്കെ ഓക്കെ ഓക്കെ പിന്നെന്നാ വേണം ആ മാങ്ങാപ്പഴവില്ല കേട്ടോ മാങ്ങാപ്പഴം എടുത്ത് വെച്ചാലും ആൾക്കാർ മേടിക്കാത്തോണ്ടതിന് ചിലവില്ല അതുകൊണ്ട് ഞങ്ങളിപ്രാവശ്യം എടുത്തില്ല എടുത്തിട്ട് കുറച്ചായി പിന്നെ നല്ലതൊട്ട് നല്ലതൊട്ട് വന്നും ഇല്ലിത് വഴി ആ ആ ആ ആ പച്ചയുണ്ട് പച്ചയുണ്ട് ആ പച്ചയുണ്ട് പച്ച എത്ര വേണം എന്തോരം വേണം ആ ആ തിരക്കാം അന്വേഷിച്ചിട്ട് പറയാവേ ആ അതെ അതെ അതെ അതെ ഓ ആ ആ ആ അത് ഞങ്ങൾ മേടിച്ച് വെക്കാം ആ കപ്പളങ്ങ ഇപ്പോഴുണ്ടല്ലോ ആ മ മധുരമുണ്ട് മധുരമുണ്ട്

ആ കിലോയാ കിലോയാ നമ്മളിപ്പോൾ ഒരു കപ്പളങ്ങ എത്ര തൂക്കും അതനുസരിച്ചാണ് കിലോയ്ക്കെന്തേലതനുസരിച്ച് നമ്മൾ ലൈഫിടും ഇപ്പം ഒരു കപ്പളങ്ങ ഇപ്പം ഒരു കിലോ കറക്റ്റൊന്നും ആയിരിക്കത്തില്ലല്ലോ ആ ഓക്കെ

ആ ആ ഡിസ്കൗണ്ടൊക്കിടും ബാ വാ വന്ന് കഴിയുമ്പം നമുക്ക് ഡിസ്കൗണ്ടൊക്കിട്ട് തരാം

ആ എങ്കിൽ ആ എങ്കിൽ പിന്നെ ഞങ്ങളിവിടുന്ന് ഓട്ടോയിൽ അ അങ്ങാക്കിയേക്കാം ഇത് ബില്ലും കൊടുത്ത് വിട്ടേക്കാം അന്നേരം പൈസയും ഓട്ടോക്കൂലിയും അങ്ങ് കൊടുത്താൽ മതിയേ ആ എങ്കിൽ പിന്നങ്ങനാകട്ടെ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ